ഹലോ സെൻറ്റ് തോമസ് സ്കൂൾ ആണോ ആ ഞാൻ ഇപ്പം ഞാൻ ഇവിടെ പാലക്കാടിന്ന് ആണേ വിളിക്കുന്നത് അപ്പം എന്താന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ പോലീസ് ഓഫീസറാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ആദ്യമേ കോഴിക്കോട് തന്നെ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആ ഞാനും മോളും ആയിട്ട് ഇവിടെ താമസിച്ച് കൊണ്ട് ഇരിക്ക ആയിരുന്നു അപ്പം എനിക്കും കോഴിക്കോടേക്കെന്നെ ട്രാൻസ്ഫർ കിട്ടി അപ്പം മോളെ അവിടെ ചേർക്കാൻ പറ്റോ എന്തായാലും എനിക്ക് അറിയാ അത് ഇത് എല്ലാം ഏകദേശം കഴിഞ്ഞൂന്ന് അറിയാം എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുവാണെ അവൾടെ ഒരു വർഷം കളയണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ആണ് ഏഴാം ക്ലാസ്സിലേക്ക് ഓക്കെ ഓക്കെ ചേർക്കാൻ പറ്റുവാണെ നല്ലൊരു ഉപകാരം ആയിരുന്നു ഓക്കെ ചേർക്കാ അല്ലേ ആ സിലബസ് ഒന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ലായിരിക്കും അല്ലേ ഇവൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയിരുന്നു സിലബസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അതായത് കുറച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കൂലേ അവൾക്ക് കാരണം ഞങ്ങൾ രണ്ട് പേരും ഡ്യൂട്ടിക്ക് പോന്നോണ്ടെ അവളെ അങ്ങനെ വൈകുന്നേരം പഠിപ്പിക്കൽ ഒക്കെ വളരെ കുറവാണ് അവൾ പക്ഷേ ക്ലാസ്സിൽ ഒക്കെ നല്ലോണം പഠിക്കും അവൾ തന്നെ സ്വന്തം ഇരുന്ന് പഠിക്കലാണ് അപ്പം അവൾക്ക് പറഞ്ഞ് കൊടുത്താൽ ഒക്കെ വേഗം മനസ്സിലാവൊക്കെ ചെയ്യും അത്യാവശ്യം പഠിക്കും അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ളത് ആണ്

ഞങ്ങൾ പിന്നെ എന്നാൽ തിങ്കളാഴ്ച് വരട്ടെ ആണോ ആ ഹാ എന്നാൽ തിങ്കളാഴ്ച് വന്നാൽ ചേർക്കാൻ പറ്റുവല്ലോ അല്ലേ മോളെ ഓ വലിയ ഉപകാരം ഓ ക്യാഷ് ഒന്നും പ്രശ്നം ഇല്ല നമുക്ക് ഒന്ന് ചേർത്ത് കിട്ടിയാൽ മതി ആ ആ ആ ഓക്കെ അത് കുഴപ്പം ഇല്ല അത് ഒന്നും കുഴപ്പം ഇല്ല അത് ഒന്നും കുഴപ്പം ഇല്ല നമ്മൾ നമുക്ക് എന്ത് വേണേ ചെയ്യാം അങ്ങനെ ആണെ ഞങ്ങൾ മൺഡേ വരട്ടെ ഓക്കെ എന്നാൽ ഓ ഓ കൊണ്ടുവരാം കൊണ്ടുവരാം താങ്ക് യൂ താങ്ക് യൂ സോ മച്ച്